ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ സംഘർഷങ്ങളും പ്രയാസങ്ങളും എല്ലാം നേരിടുന്നുണ്ട് പക്ഷേ നമ്മൾ ഓരോ സാഹചര്യത്തിന് അനുസരിച്ച് നമുക്ക് അങ്ങനെ നിന്നല്ലേ പറ്റുവൊള്ളൂ നമ്മളൊരു സ്ഥാപനം ആളിൻ്റെ സ്ഥാപനത്തിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അവർ പറയാണതെല്ലാം നമ്മൾ കേൾക്കണം ചിലപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരൂല്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളെല്ലാവരും നമുക്ക് അനുകൂലമായിട്ടുള്ളതല്ല അപ്പം അങ്ങനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് പിന്നെ അവർ പറയുന്ന നമ്മൾ പറയുന്ന ഓരോ രീതിയിലായിരിക്കൂല്ല നമ്മളായി ഓരോന്നും പറഞ്ഞ് നമ്മളെ വിഷമപ്പെടുത്തുമ്പം നമ്മളത് മനസ്സിൽ വെച്ചത് അത് പുലർത്താറില്ല പിറ്റേന്ന് നമ്മൾ ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടീട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ അതെല്ലാം മറന്ന് പിറ്റേന്നും പുതിയൊരു മനുഷ്യനായിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ജോലിക്ക് വരാറുണ്ട് അങ്ങനയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുവൊക്കെ മതിയെനിക്ക് എനിക്ക് മാത്രമല്ല നമ്മളെ പോലെ സാധാരണ രീതിയിൽ ജോലിചെയ്യുന്ന എല്ലാ സ്ത്രീകളും അനുഭവപ്പെടുന്നൊരു കാര്യമാണ് പിന്നെ നമുക്കതിനെക്കുറിച്ച് പ്രയാസകരമായിട്ടുള്ളതെല്ലാം വരുമ്പം നമ്മളതെല്ലാം അതിനെ എല്ലാം തരണം ചെയ്താണ് ജീവിക്കണത് നമുക്ക് ജീവിക്കണമല്ലോ നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താൻ വേണ്ടീട്ടാണല്ലോ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് എന്നെ മാത്രമല്ല എന്നെ പോലുള്ള എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇത് തന്നെയാണ്